ഹലോ ആ ആ പൂജാരിയല്ലേ ആ ഞാൻ വിളിച്ചതേ എൻ്റെ മകളുടെ എൻ്റെ മകളുടെ കല്യാണമാണേ അപ്പോൾഅതുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ ചെയ്യണമെന്ന് അറിയാൻ വേണ്ടിയിട്ട് വിളിച്ചതാ ഏ

ആ ആ ജാതകം ജാതകം കൊണ്ട് ഞാൻ അങ്ങോട്ട് വന്ന് ആ ആ ആ അതു ശരി ശരി ഞാനൊരു കാര്യം ചെയ്യാം അടുത്ത ദിവസം ആ ജാതകവും കൊണ്ട് അങ്ങോട്ട് അങ്ങോട്ട് കൊണ്ടുവരാം പൂജാരിയുടെ അടുത്തോട്ട് കൊണ്ട് വരാം കേട്ടോ ആ ആ അപ്പം പിന്നെ ഒരു കാര്യം ചെറിയൊരൂ ചൊവ്വാദോഷമുള്ള കുട്ടിയാണ് ഏഹ് അപ്പോൾ അതിനെന്താ

ഇല്ല ഇല്ല ആ ഓക്കെ ആ ഓക്കെ ഓക്കെ അപ്പം ആ ആ അപ്പം പൂജാരി ഒരു കാര്യം കൂടി ചോദിക്കാനുണ്ടേ അതായത് ഞങ്ങൾ ഈ ഇപ്പം ക്ഷേത്രത്തിൽ വെച്ച് തന്നേ അമ്പലത്തിൽ വെച്ച് തന്നെ നടത്തണമെന്ന് നിർബന്ധം വല്ലതും ഉണ്ടോ ഞങ്ങളുടെ

ആ നടത്താം ആ

ആ വേനൽക്കാലമല്ലേ നല്ലെയൊരു ഹോളുണ്ടിവിടെ ഏഹ് നല്ല ഒരു എയർ കണ്ടീഷൻ ഹോളുണ്ട് അവിടെ വെച്ച് നടത്തുന്നതിനും കുഴപ്പം കുഴപ്പമൊന്നുമില്ലല്ലോ ഒന്നുമില്ല അല്ല അല്ല അല്ല ഇല്ല അത്രേയേയുള്ളു അല്ലേ അപ്പം ഞങ്ങൾ പൂജാരിയെ ആ ഞങ്ങൾ വന്നാൽ പൂജാരി അങ്ങോട്ട് വരുമല്ലോ ഇല്ലേ വരും ആ വരും വരും വരും ആ ആ പിന്നെ നമ്മുടെ ഭക്ഷണമൊക്കെ പിന്നെ ഈ വെജിറ്റ വെജിറ്റേറിയൻ രീതിയിൽ തന്നെ ഉള്ളതാണ് ഞങ്ങൾ ആ അതെ ആ അതാ അതാണുദ്ദേശിക്കുന്നതല്ലേ ആ ആ ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ അപ്പോഴേ ഈ പിന്നെ ഈ ഇത്

മറ്റേ അങ്ങ് കൊടുത്താൽ മതിയല്ലേ മതി ആ അപ്പഴേ ആ ഞാൻ അതാ ഞാൻ ചോദിച്ചേ അല്ലെങ്കിൽ ഞാൻ ഇനി അടുത്ത ദിവസമോ അല്ലെങ്കിൽ വേറൊരു ദിവസമോ അങ്ങനെയുള്ളവർക്ക് പ്രത്യേകമായിട്ട് നമുക്കറിയാമല്ലോ അല്ലാത്ത ആൾക്കാരുമുണ്ടല്ലോ ആ കൊടുത്താൽ മതി ആ എന്നാൽ അങ്ങനെ ചെയ്തോളാം കേട്ടോ എന്നാൽ അങ്ങനെ അങ്ങനെ ചെയ്തോളാം കേട്ടോ ആ പിന്നെ ഈ പിന്നെ പൂജാരിയുടെ അടുത്തോട്ട് ഞങ്ങളീ ഇതും കൊണ്ട് വരാം നോക്കാം പിന്നെ ജാതകവും കൊണ്ടൊക്കെ അങ്ങോട്ട് വരാം ഏഹ് വന്നിട്ട് നമുക്ക് ആ ആ പിന്നെ മുഹൂർത്തമും മുഹൂർത്തം കുറിക്കുന്നതിനും പൂജാരി തന്നെയാണോ ആ ആ അത് പൂജാരി തന്നെയാ ആ അടുത്ത അതാ ചിങ്ങ മാസത്തിലാണ് ഉദ്ദേശിക്കുന്നത് ചിങ്ങമാസത്തിൽ ഏ അതെ ഒ ആ ആ ആ ആ ആ ആ ഞ ആ ആ അത് ശരി ശരി ആ ആ അപ്പം ആ അപ്പം മുഹൂർത്തം അനുസരിച്ച് ഞങ്ങൾ വന്നോളാം കേട്ടോ കേട്ടോ എന്നാൽ ഓക്കെ ആ ഓക്കെ ഓക്കെ താങ്ക് യൂ താങ്ക് യൂ താങ്ക് യൂ ഓക്കെ ആ ഉം